അവരെ കൂടുതൽ പരിപാലിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും അവർക്കു പുല്ല് അതുപോലെ പോഷകാഹാരങ്ങൾ അതുപോലെ ആരോഗ്യപരിപാലനം അങ്ങനെ ഒരുപാട് സാധനങ്ങളും പുല്ല് തവിട് കഞ്ഞിവെള്ളം അതുപോലെ പിണ്ണാക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങള് കൊടുക്കുകയും അവരുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി അവരെ സഹായിക്കുകയും അതുപോലെ അവരുടെ അമ്മ അമ്മയിൽ നിന്നുള്ള പാലിനു വേണ്ടി അമ്മ അമ്മയ്ക്കു കൂടുതൽ പോഷകാഹാരങ്ങൾ കൊടുക്കുകയും അമ്മയുടെ പാൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി അമ്മയ്ക്കു നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കും അതുപോലെ എന്തെങ്കിലും അത്യാവശ്യ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മൃഗ ഡോക്ടറെ ബന്ധപ്പെടുകയും അവരെ കുളിപ്പിക്കുക അതുപോലെ അവരെ എങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യണോ അതുപോലെയെല്ലാം ചെയ്യുകയും അവർക്കു പുല്ല് വൈക്കോല് അങ്ങനെ മുതലായ എല്ലാ സാധനങ്ങളും അവരെ നമ്മുടെ മക്കളെ പോലെ തന്നെ നോക്കുകയും അവർക്കു വേണ്ട സാഹചര്യങ്ങളൊരുക്കുകയും അവരെ നല്ല സുരക്ഷിതമായി സുരക്ഷിതമായി സ്ഥലത്ത് അവരെ താമസിപ്പിക്കുകയും അവർക്ക് എന്തൊക്കെ അത്യാവശ്യ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും എന്തൊക്കെ സാധനങ്ങൾ വേണമോ അതെല്ലാം നൽകുകയും അ പിന്നെ അവരെ കൂടുതൽ പാടത്തും അവിടെയൊക്കെ കൊണ്ടുക്കെട്ടി കൂടുതൽ പുല്ല് ഭക്ഷിപ്പിക്കുകയും അതുപോലെ എങ്ങനെയൊക്കെ അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മളാൽ കഴിയുന്ന വിധം രക്ഷപ്പെടുത്തുകയും പിന്നെ അവർക്ക് അവര് അവരുടെ അമ്മയിൽ നിന്നുള്ള എത്രത്തോളം തണല് വേണോ അങ്ങനെ അത്രത്തോളം തണൽ കൊടുക്കുകയും പിന്നെ അവർക്കു വേണ്ട ഭക്ഷണങ്ങൾ നല്ല നല്ല ഭക്ഷണങ്ങൾ എത്രത്തോളം കഴിക്കാൻ പറ്റുന്നോ അത്രത്തോളം ഭക്ഷണങ്ങള് കൊടുക്കുകയും നമ്മളാൽ കഴിയുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുകയും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറിനെ ബന്ധപ്പെട്ട് അതുപോലെ അവർക്കു വേണ്ട സാധനങ്ങളും സേവനങ്ങളും എല്ലാം നൽകാൻ അവരെ അവരോടു പറയുകയും എന്തെല്ലാം ആരോഗ്യപ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ശരിയാക്കാനും എല്ലാതും ഒക്കെ ശരിയാക്കാനും ഞങ്ങളെക്കൊണ്ടു സാധിക്കുന്ന വിധം കഴിയുന്ന വിധം ഞങ്ങൾ ഞങ്ങൾ ശരിയാക്കും അതുപോലെ അവർക്കു കൂടുതൽ നമ്മുടെ മക്കളെ പോലെ തന്നെ മക്കളുടെ മക്കളെക്കാൾ കൂടുതൽ നോക്കുകയും കൂടുതൽ പരിപാലിക്കുകയും ചെയ്യും